ഹലോ ടൈലർ ഷോപ്പല്ലേ ചേച്ചി ഞാൻ ഉച്ചയ്ക്കു വന്നു തുണി കൊണ്ടുവച്ചിരുന്നു ചേച്ചീനെ കണ്ടില്ല ചേച്ചീൻ്റെ അസിസ്റ്റൻ്റ് മാത്രമേ ഉണ്ടായുള്ളൂ ഒരു മണിക്കാണോ ലഞ്ച് ബ്രേക്ക് ആ ഓക്കെ ആ അപ്പോഴാണ് ഞാൻ വന്നത് ആ ചേച്ചി ആ തുണി എനിക്ക് നാളെ കിട്ടണം

അത് ആനുവൽ ഡേയ്ക്ക് ഇടാൻവേണ്ടി ഒരു യൂണിഫോം ആയിരിന്നു ആ അതെ കോഡ് ഡ്രസ്സ് ഏഹ് മോഡലൊന്ന് ഓവർക്കോട്ടും ഉള്ളിൽ ടീഷർട്ടും പിന്നെ ബ്ലാക്ക് പാൻ്റും അ ഒരു ജോഡിയേ ഉള്ളു നാളെത്തേയ്ക്ക് വേണ്ടി മാത്രാം ചേച്ചി ഞാൻ ആ സുധാകരൻ്റെ മകനാണ് അപ്പോൾ ചേച്ചീൻ്റെ അടുത്ത് ഞാൻ പണ്ട് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാഴ്ച്ച ചേച്ചി ഞാൻ വന്നത്

ആ എൻ്റെ പേര് ശശി എഴുതിയിട്ടുണ്ടോ നോക്കിക്കോ നോക്കിയിട്ട് പറയുമോ വേഗം പറയൂ വേഗം പറയൂ ഇന്ന് ചൊവ്വാഴ്ച്ചയല്ലേ അപ്പോൾ തിങ്കളാഴ്ച്ച ഷർട്ടിൻ്റെ എത്രയാണ് ഷർട്ടിൻ്റെ ഉള്ളതിൽ നിന്ന് ഒരു രണ്ട് സെൻ്റീമീറ്ററ് വലുതാക്കി അടിച്ചോ അല്ല വരിക നാളെ ഡാൻസ് പരിപാടിയുണ്ട് അപ്പോൾ അതിനിടാൻ വേണ്ടിയാണ് അപ്പോൾ അതിന് സാനങ്ങൾ മേടിക്കാൻ പോണം ആ പാൻ്റെന്തായാലും ഞാൻ ഒരു പതിനെട്ടെ പത്തൊമ്പത് അടിച്ചോ ഓക്കെ ഞാനെന്നാൽ നാളെ വരാം മേടിക്കാൻ വരാം ഇല്ലെങ്കിൽ രാത്രി വന്നാൽമതിയോ ആ ഒരു ഏഴ് മണിയൊക്കെയാവുമ്പം ചേച്ചി നാളെ ഉച്ചയ്ക്ക് സാധനമെനിക്ക് കിട്ടണം എന്നാൽ ഞാൻ നാളെ വെളുപ്പിന് വരാം എന്താ എട്ട് മണിയാവുമ്പോൾ വരാം പത്തുമണിയാവുമ്പോഴേക്കും എനിക്ക് റെഡിയായി പോകേണ്ടതാണ് സ്കൂളിലെത്തണ്ടേ അ ഓക്കെ ഞാൻ നാളെ വരാം